കിച്ചനെപ്പറ്റി പറയുകയാണെങ്കില് സാംസ്കാരികസത്യത്തില് പൈതൃകത്തിൻ്റെ ഇതില് പണ്ട് കാലങ്ങളില് നമുക്ക് ഓരോ മൺപാത്രങ്ങള് ഒക്കെയായിരുന്നു ആ വീടുകളിൽ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിരുന്ന കാലത്ത് അധികം രോഗങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പുതിയ സ്റ്റീൽ പാത്രം സ്റ്റീലിൻ്റെ അംശം ഓരോരോ പാത്രങ്ങളിൽ ഇറങ്ങിയിരുന്നു അതിൻ്റെ ഇതില് രോഗങ്ങള് കൂടി പാനില് പാനിൻ്റെ അതിലുള്ള പെയിൻറ് അതൊക്കെ മൂലം പല രോഗങ്ങള് ഉണ്ടാകാൻ സാ സാ കൂടി പണ്ട് കാലങ്ങളിൽ ആണെങ്കിൽ ഇത് രോഗങ്ങള് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മൺചട്ടികളാണ് മണ്ണ് കൂടുതലുണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് നമ്മള് മണ്ണെടുത്ത് അവിടെത്തന്നെ പാചകം ചെയ്ത് അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പത്തെ ജൻറേഷൻ മാറി പുതിയ പാത്രങ്ങള് പാനലുകൾ ഇതിലൊക്കെ വെക്കുന്നതോടുകൂടി രോഗങ്ങളും കൂട്ടങ്ങളും കൂടാൻ തുടങ്ങി പിന്നെ മൺപാത്രത്തിലാണ് കൊണ്ട് വെച്ച് ഇത് അതിൻ്റെ ഒരു ഒരു മൂല്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൺപാത്രത്തിൻ്റെ അ മൂല്യം മാറി ഇപ്പം സ്റ്റീൽ പാത്രം അങ്ങനെത്തേതിലേക്ക് ഒക്കെ വന്നു